ഹലോ ആ പറഞ്ഞോളൂ മേഡം ആ അതെ മേഡം പറഞ്ഞോളൂ ആ ഓക്കെ മേഡം എങ്ങനെ ആണ് വിദ്യാഭ്യാസ ലോൺ അല്ലേ പറഞ്ഞത് നമുക്ക് ആ ഓക്കെ നമുക്ക് ഇപ്പം ഗോൾഡ് വെച്ചും ചെയ്യാൻ പറ്റും പിന്നെ സ്ഥലത്തിൻ്റ എന്തെങ്കിലും ആധാരമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാൻ പറ്റും മേഡം ആ ഗോൾഡ് ലോൺ ആണെങ്കിൽ നമുക്ക് ഇപ്പം പവന് മുപ്പത്തിയേഴ് ഇരുന്നൂറ് വെച്ചിട്ട് ആണ് നമ്മൾ ഇപ്പം കൊടുക്കുന്നത് ആ പതിനഞ്ച് തികയുമെന്ന് തോന്നുന്നില്ല മേഡം പതിനഞ്ച് പവന് ആ പതിനഞ്ച് ആവുമ്പോൾ ഏകദേശം ഒരു അഞ്ചിൻ്റ ചുവടെ വരൂള്ളൂ ആ ഓക്കെ ആ ആ നമുക്ക് ഇപ്പം സ്ഥലത്തിൻ്റ ആ ഓക്കെ നമ്മൾ ഇപ്പം സ്ഥലം വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അത് വേരിഫൈ ചെയ്തിട്ട് എത്ര പവന് ചേഹ് സോറി സെൻറ്റിന് എത്ര റേറ്റും കാര്യങ്ങളും അവിടെ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഏകദേശം ഒരു റേറ്റ് പറയുക ആ ഇല്ല നിങ്ങൾ കൈവശം സർട്ടിഫിക്കറ്റും കാര്യങ്ങളും പിന്നെ സ്ഥലം ആധാരവും കാര്യങ്ങളും നമുക്ക് കോപ്പി ആയിട്ട് തന്നാൽ മതി ശേഷം നമ്മൾ അതിൻ്റെ ഈ സാധനങ്ങൾ എല്ലാം പ്രൂഫ് എല്ലാം നോക്കിയതിന് ശേഷം ആണ് ലോണിന്റെ പ്രൊസീജിയർ ഒക്കെ നോക്കൂള്ളൂ നേരത്തെ അത്യാവശ്യം ഉള്ള ഫണ്ട് ആണോ ആ ഓക്കെ എന്നാൽ ആ ആ ഓക്കെ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തുതരാം

ആ ഓക്കെ അപ്പം നമ ആ

ആ ആ ഓക്കെ അപ്പോൾ നമുക്ക് പരമാവധി ഫാസ്റ്റ് ആക്കിത്തരാം ആ ഓക്കെ ഓക്കെ എന്നാൽ നമ്മൾ പരമാവധി ഫാസ്റ്റ് ആക്കിത്തരാം മേഡം മേഡം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞാൽ മതി നമുക്ക് ഇപ്പം ഗോൾഡ് വെച്ച് എടുക്കാം ഇല്ല ഗോൾഡ് മാത്രം ആയിട്ട് നമുക്ക് കൊണ്ടുവന്നാൽ മതി ആ വേ ഗോൾഡ് ആണ് വയ്ക്കുന്നതെങ്കിൽ വേറെ പ്രൂഫും കാര്യങ്ങൾ ഒന്നും വേണ്ട നിങ്ങളുടെ ആധാർ കാർഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഐ ഡി കാർഡും ഗോൾഡും കൊണ്ടുവന്നാൽ മതി

എങ്ങനെ സാക്ഷി ഇല്ല മേഡം നമ്മൾ ഇപ്പോൾ ഗോൾഡിൻ്റെ നിങ്ങളുടെ പ്രൂഫും കാര്യങ്ങളും കൊണ്ട് വരുക നമ്മൾ ഗോൾഡ് എത്ര ഉണ്ടോ അതിനു അനുസരിച്ച് ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റേറ്റും കാര്യങ്ങളും തരുകയാണ് ചെയ്യുക നോമിനി ആ ഒരാളും ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ഇല്ലെങ്കിലും പ്രശ്നം ഒന്നും ഇല്ല മേഡം ഒരു നോമിനീനെ വയ്ക്കുവാണെങ്കിൽ അത്രയും ബെറ്റർ അതെ മേഡം ഞങ്ങൾ തിങ്കളാഴ്ച ഓപ്പൺ ആണ് ഇല്ല ഇല്ല നമ്മൾ ഗോൾഡ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇതാക്കുന്നത് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യും ആ ആയിക്കോട്ടെ മേഡം എന്നാൽ മൺഡേ പോര് ആ ഓക്കെ മേഡം എന്നാൽ മൺഡേ പോന്നോളൂ